സ്കൂളിൽ എപ്പോഴും ഇഷ്ടപ്പെട്ട വിഷയം എന്ന് പറയുമ്പോൾ അത് മാറിക്കൊണ്ടേയിരിക്കും അത് ചില സമയത്ത് സംസ്കൃതമായിരുന്നു ചില സമയത്ത് മാത്സ് ആയിരുന്നു മാത്സ് എപ്പോഴും പ്രിയപ്പെട്ട വിഷയങ്ങളിൽ ഒന്നായിരുന്നു കാരണം മാത്സിലുണ്ടാവുന്ന പ്രോബ്ലം സോൾവിങ്ങ് എന്ന് പറയുന്നത് എപ്പോഴും നമ്മക്കൊരു ഇൻട്രെസ്റ്റിങ്ങായിട്ട് തോന്നും കാരണം ക്ലാസുകളിൽ എപ്പോഴും പ്രോബ്ലംസ് ചെയ്യുന്ന സമയത്ത് അത് ഇൻറ്ററസ്റ്റിങ്ങ് ആയിട്ട് നമ്മുടെ മൈൻഡ് അങ്ങോട്ടേക്ക് ഫോക്കസ് ചെയ്യാൻ എപ്പോഴും ഹെൽപ്പ് ചെയ്യാറുണ്ട് അതുകൊണ്ടുതന്നെ മാത്സ് എപ്പോഴും പ്രീയപ്പെട്ട വിഷയങ്ങളിൽ ഒന്ന് തന്നെയാണ് എന്നാൽ ഹയർ സെക്കണ്ടറി എത്തിയപ്പോഴേക്കും മാത്സിൻ്റെ ടഫ്നസ് എന്ന് പറയുമ്പോൾ അതിനോടുള്ള ഇൻട്രെസ്റ്റ് കുറയ്ക്കാൻ കാരണമായെങ്കിലും കുറച്ച് കഴിഞ്ഞപ്പോൾ മാത്സ് എന്നുള്ളത് വീണ്ടും ഒരു ഇഷ്ട സബ്ജക്റ്റായിട്ട് മാറുകയായിരുന്നു ചെയ്തിരുന്നത് സ്കൂൾ കാലത്തെ ഏറ്റവും സന്തോഷളള ഒരു ഓർമ്മ എന്ന് പറയുമ്പോൾ ഫ്രണ്ട്സിൻ്റെ കൂടെ കറങ്ങി നടന്നത് അതുപോലെത്തന്നെ അവരുടെ കൂടെ ടൂർ പോയത് അത് പോലെത്തന്നെ കലോത്സവങ്ങളിൽ എൻജോയ് ചെയ്തത് അങ്ങനെ പല പല ഓർമ്മകൾ ആണ് നമ്മുടെ സ്കൂൾ കാലത്തുണ്ടായിരുന്നത് ഈ ഓർമ്മകൾ ഒന്നും ഒരിക്കലും നമ്മളെ വിട്ട് പോവുകയേയില്ല അത് എപ്പോഴും നല്ല നല്ല ഓർമ്മകൾ ആയിട്ട് എപ്പോഴും ഉണ്ടായിരിക്കുകയും ചെയ്യും അതുകൊണ്ടുതന്നെ സ്കൂൾ കാലം എന്ന് പറയുന്നത് എപ്പോഴും മധുരമുള്ള ഒരു ഓർമ്മയായി കണ്ടിന്യു ചെയ്യും